ഹലോ പെയിൻറ്റിങ് പണി ചെയ്യുന്ന ആളല്ലേ ഞാൻ വിളിച്ചത് എനിക്ക് ഒരു വീടിന് പെയിന്റ് ചെയ്യാൻ ഉണ്ടായിരുന്നു അതിൻ്റെ കാര്യത്തെക്കുറിച്ച് ഒന്ന് അറിയാൻ വേണ്ടി ആയിരുന്നു ഒരു രണ്ട് നില വീടാണ് അപ്പം അത് നമുക്ക് പെയിൻറ്റ് ചെയ്യുന്നതിന് ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ്

അപ്പം അതിന് എന്തോരം പെയിൻറ്റ് വേണ്ടി വരും

അതെ നമ്മൾ ഇപ്പം നിലവിൽ ആദ്യവമായിട്ടാണ് ഈ വീടിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ പണി ചെയ്യുന്നത് അപ്പം നമുക്ക് അതിനെ കുറിച്ചൊരു കൂടുതൽ ഒരു ഐഡിയ ഇല്ല അപ്പം നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളാകുമ്പോൾ അതിനെക്കുറിച്ച് അറിയാമല്ലോ അത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചത് ഏഷ്യൻ പെയിൻറ്റ് നമുക്ക് കുഴപ്പമില്ലായിരിക്കും അത് നല്ല പെയിൻറ്റല്ലേ ആ നമുക്ക് ഓരോ മുറിക്കും ഓരോ കളറ് ചേർക്കുന്നത് ആണോ അടിക്കുന്നത് ആണോ നല്ലത് അതോ ഒറ്റ കളറങ്ങ് അടിക്കുന്നത് ആണോ നല്ലത് എന്താണ് അഭിപ്രായം

അതേല്ലേ അത് അടിച്ച് കഴിയുമ്പം നമുക്ക് നല്ല ഭംഗിയായിരിക്കണം നല്ല ഭംഗി ആയിരിക്കണം അതേ അല്ലേ

ഇച്ചിരൂടെ ഭംഗി ഉണ്ടാകുമായിരിക്കും അല്ലേ ആ നാളെ വീട്ടിൽ വന്ന് നോക്കുമോ അങ്ങനെ ആണേൽ നാളെ എപ്പോഴത്തേക്ക് വരും ആ എന്നാൽ ശരി ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ ഓക്കെ ഓക്കെ ഓക്കെ ആ ശരി ഓക്കെ